ഇന്നത്തെ കാലത്ത് വിദ്യാഭ്യാസം വളരെ പ്രധാനമായിട്ടുള്ള ഒന്നാണ് പണ്ടുകാലത്തൊക്കെ കൂടുതലും നാട്ടും പ്രദേശത്ത് കൃഷി ചെയ്തിട്ടൊക്കേ ആയിരുന്നു ജീവിച്ചിട്ടുണ്ടായിരുന്നത് എല്ലാവരും പക്ഷേ ഇന്നത്തെ കാലത്ത് വിദ്യാഭ്യാസം മസ്റ്റ് ആണ് അതുകൊണ്ടുതന്നെ എല്ലാവർക്കും വിദ്യാഭ്യാസം വേണം നല്ല ഉയർന്ന വിദ്യാഭ്യാസം തന്നെ വേണം നമ്മുടെ ടെക്നോളജിയും അതേപോലെ എല്ലാം വളർന്നുകൊണ്ടുതന്നെ നമുക്കെല്ലാ കാര്യങ്ങളും അറിയണമെങ്കിൽ നമുക്ക് അതിന്റേതായ വിദ്യാഭ്യാസം വേണം അതില്ലാണ്ട് ആവുമ്പോൾ നമുക്ക് ഇന്നത്തെ കാലത്ത് എന്താ നടക്കണതെന്നോ ഏതാ നടക്കണതെന്നോ ഒന്നും അറിയാൻ പറ്റില്ല അപ്പോൾ വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ ആ കാര്യങ്ങൾ നമ്മളിലേക്ക് എത്തില്ല അതേപോലെ നമുക്ക് വേറൊരാളുടെ സഹായം വേണം വിദ്യാഭ്യാസം ഉള്ള ആരുടെയെങ്കിലും സഹായത്തിലെ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ മുന്നോട്ടു കൊണ്ടു പോകാൻ പറ്റുകയുള്ളൂ അതിപ്പോൾ എന്തെങ്കിലും അറിയാൻ ആണെങ്കിലും എന്തിനാണെങ്കിലും മറ്റുള്ളവരുടെ സഹായം വേണം ഇപ്പോൾ വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ തന്നെ നമുക്കിപ്പോൾ ഇന്നത്തെ കാലത്ത് ഒരു ജോലിയൊക്കെ നല്ല ജോലി സാലറിയുള്ള ജോലി നമുക്ക് കിട്ടുകയുള്ളൂ അത് ഇല്ലെങ്കിൽ നമുക്ക് അതിൻ്റെതായ പോരായ്മകളൊക്കെ ജീവിതത്തിൽ ഉണ്ടാകും